എൻ്റെ വീടിൻ്റെ വാഷ് ബേസിനിലെ പൈപ്പിൽ നിന്ന് വെള്ളത്തിന്റെ അളവു പെട്ടെന്നങ്ങു കുറയുന്നു വേഗത അതായതതിൻ്റെ ഫോഴ്സ് വരുന്നില്ല കുറച്ച് കുറച്ചുകുറച്ച് വരികയാണ് അതിന്റെയകത്ത് കരടെന്തോ ഉണ്ടെന്നു തോന്നുന്നു എനിക്കറിയത്തില്ല ഇപ്പോള് പൂർണമായിട്ടും അങ്ങ് അങ്ങ് നിന്നുപോവുകയാണ് ആദ്യം വരുമായിരുന്നൂ പിന്നെ വരത്തില്ല ഇപ്പോഴങ്ങു പൂർണ്ണമായിട്ടും നിന്നുപോവുന്നു തടസ്സത്തിന് വേണ്ടി ഞാനാരെയാണു ബന്ധപ്പെടേണ്ടത് വീട്ടിലെ വേറെ പൈപ്പുകളിലെല്ലാം നോക്കി എല്ലാ പൈപ്പിലും കുഴപ്പമില്ല ഒരെണ്ണത്തിനും ത് വരുന്നില്ല ഡയറക്റ്റ് വരുന്ന പൈപ്പില് ലൈനില് വരുന്നതിനകത്തു വെള്ളം വരുന്നില്ല അതിനെ എന്തു ചെയ്യണം